ആരാ ആരാ അതെ അതെ അതെ മ്മ് ആ ആ ആ ആ ആ ആ ആ ആ

ആ അതെ അതെ അതെ ആ ഇവിടെ നേരത്തെ അക്കൗണ്ടുണ്ടോ ഇല്ല ആ ആ ആ ആ ആ അതിന് ഐ ഡി ആ ഐ ഡി കാർഡ് കാർഡിൻ്റെ പ്രൂഫ് വേണം ആ പിന്നെ ഒരു ഫോട്ടോ ആ ആ ആ അതെ ആ ആ കൊണ്ടുവന്നാല് മതി ആര് ആ ആ ആ ആ വേറേ എല്ലാ അതിന് ആ നോ ആ എല്ലാമുണ്ട് ആ എല്ലാമുണ്ട് ആ ആ ആ ഉണ്ട് ആ രാവിലെ നൈൻ തേർട്ടി മുതല് ആ വണ്ണോ ക്ലോക്ക് വരെ ആ ആ ആ ആ ആ ആ ആ ആ

അല്ലേ ഒരു ത്രീ തേർട്ടിക്ക് ശേഷം ആ ആ ആ ആ ആ ആ ആ ആ എല്ലാമുണ്ട് മലയാളം എല്ലാമുണ്ട് ആ ആ ആ ആ ആ

ആ അപ്പോള് ആ ത്രീ തേർട്ടി കഴിഞ്ഞ് ഒരു ദിവസം വ വന്നാല് മതി ആ ആ കുട്ടികൾക്കൊക്കെ ഇപ്പോള് ആദ്യം വന്ന വന്നതിന് ശേഷം അവർക്ക് ബുക്ക് കൊടുത്തിട്ട് ഒരാഴ്ച്ച കഴിഞ്ഞവരിങ്ങ് ആ ഒരാഴ്ച്ച ആ വാങ്ങിക്കും തിരികെ ആ ആ ആ അപ്പഴ് ആ സമ്മറി എഴുതിപ്പിക്കും ആ ആ ആ ആ ആ ആ ഫൈനുണ്ട് ഫൈനുണ്ട് ആ ആ ആ ആ ആ ആ ഉണ്ട് ആ ആ

ഏ എന്തോ ഹലോ ആ ആ ആ ആ കുറച്ചു ദിവസം സെവൻ ഡേയ്സില് കൂടുതല് വേണോ സെവൻ ഡേയ്സില് ഇംഗ്ലീഷും ഹിന്ദി എല്ലാം അവൈലബിളാണ് ആ ആ സ്റ്റോറി ബുക്ക്സ് ആ ഗ്രാ ആ ഉണ്ടുണ്ട് ഉണ്ട് ആ ആ ഉണ്ടുണ്ട് ഉണ്ട് ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ

ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ആ ആ

ആ ആ ആ ആ ഓക്കെ ആ ആ വെൽക്കം വെൽക്കം